എൻ്റെ കുടുംബത്ത് തലമുറകളായി കൈമാറി വരുന്ന ഒരു പാചക വിദ്യ പാചകമാണ് സാമ്പാർ എനിക്ക് പണ്ട് മുതലേ സാമ്പാർ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അപ്പം എനിക്ക് ഒണ്ടാ പണ്ട് ഞാനിപ്പോളും ഓർക്കുന്നുണ്ട് ഞാൻ അങ്കനവാടീലക്കെ പഠിക്കുമ്പോഴ്ത്തേക്ക് എൻ്റമ്മ എപ്പോഴും എനിക്ക് സാമ്പാറായിരുന്നു ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നോണ്ടിരുന്നത് കാരണം എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടവായിരുന്നു പണ്ട് മുതലേ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് എൻ്റെ അച്ച് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റച്ഛനും അമ്മയ്ക്കും അനിയനുവൊക്കെ സാമ്പാറിഷ്ടമാണ് എൻ്റമ്മയ്ക്ക് എൻ്റമ്മ സാമ്പാറുണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റമ്മയ്ക്ക് കല്യാണം കഴിച്ചു വന്നപ്പം സാമ്പാറുണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ്റമ്മയാണ് എൻ്റമ്മേനെ സാമ്പാർ വെക്കാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചത് അച്ഛൻ്റമ്മ പണ്ടത്തെ കാലത്ത് അവർക്ക് അവരുടേതായ കുറച്ച് റെസിപ്പികളുണ്ടായിരുന്നു അതെൻ്റെ അമ്മേനെ പഠിപ്പിച്ചു എൻ്റച്ഛൻ അച്ചമ്മ പഠിച്ചത് അച്ചമ്മേടെ അമ്മായിയമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ് അച്ചമ്മ ഇത് പഠിപ്പിച്ചത് ഈ റെസിപ്പീന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് എനിക്ക് മറ്റൊരു വീട്ടിലും കിട്ടീട്ടില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരിത് കാരണം എൻ്റമ്മ വെക്കുന്ന സാമ്പാർ ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഒരു ബ്രാഹ്മിണ്സിൻ്റെ ഹോട്ടലിൽ പോയാപ്പോലും എൻ്റമ്മേനെ പോലത്തെ ഒരു നല്ല സാമ്പാറവിടെ വെയ്ക്കാറില്ല സാമ്പാർ ഞങ്ങടെ വീട്ടിലെല്ലാർക്കും തന്നെ ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെറ്റോം കൂടുതൽ സാമ്പാർ എപ്പോഴും കഴിയ്ക്കുന്നത് ഞാനായിരിക്കും ഞാൻ ചോറിൻ്റെ കൂടെ സാമ്പാറിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം ചോ ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ പൊറോട്ടേടെ കൂടെ സാമ്പാർ കഴിക്കാറുണ്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാറുണ്ട് എനിക്കാണങ്കിൽ ദോശ കഴിക്കുമ്പം സാമ്പാറക്കെ ദോശേടെ മോളിലിങ്ങനെ കിടക്കണം അതാണെനിക്കേറ്റോ ഇഷ്ടം എന്നിട്ട് കുഴച്ച് കുഴച്ച് സാമ്പാർ തിന്നുന്നതാണ് എനിക്കേറ്റോ ഇഷ്ടം പിന്നെ സാമ്പാർ സാമ്പാറെന്ന് പറഞ്ഞാൽ എന്താണ് ആ സാമ്പാറിനകത്ത് എന്തൊക്ക പച്ചക്കറികളുണ്ട് കുറെ പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഏത് പ്രായത്തിലുള്ളവർക്കും സാമ്പാർ കഴിക്കാൻ പറ്റും കാരണം അതിനാത്ത് ഉരുളക്കിഴങ്ങുണ്ട് പച്ചമുളകുണ്ട് വെണ്ടയ്ക്ക ഇടും തക്കാളിക്ക ക്യാരറ്റ് ബീൻസ് അങ്ങനെ ഉള്ളീ വഴുതനങ്ങ സബോള എന്ത് ഇപ്പം എന്ത് പച്ചക്കറി വേണങ്കിലും നമുക്ക് സാമ്പാറിലിടാൻ പറ്റും സാമ്പാറിനകത്ത് നമ്മളിന്ന് ഇപ്പം ഇപ്പം ഇപ്പം ഞ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം പറയുവാ ഇപ്പം വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങും തക്കാളിക്കേം മുരിങ്ങക്കോലും മാത്രമേ ഉള്ളൂ അയ്യോ ഇത് വെച്ചെങ്ങനെ സാമ്പാർ വെക്കും സാമ്പാറുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോന്ന് ഓർത്ത് ആരും വിഷമിച്ചിരിക്കാറില്ല കാരണം സാമ്പാറിന് പൊതുവേ ആയിട്ട് കുറെ അധികം പച്ചക്കറികൾ വേണംന്നാലും സാമ്പാറിന് പക്ഷേ ഇത്രേ ഇത്രേം പറ്റത്തൊള്ളൂന്നൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് സാമ്പാറുണ്ടാക്കാൻ പറ്റും എൻ്റെ വീട്ടിൽ എൻ്റമ്മ സാമ്പാറുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഞങ്ങക്ക് ഞങ്ങടെ വീട്ടിൽ ഞങ്ങൾ പുറത്തൂന്ന് പച്ചക്കറികൾ വാങ്ങാറില്ല കാരണം ഞങ്ങടെ വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ട് ഞങ്ങടെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മോളിൽ ഞങ്ങൾ പച്ചക്കറി വളർത്തും വളർത്താറുണ്ട് ഏ ഞങ്ങൾ ഞങ്ങടെ വീട്ടിൽ പച്ചമുളകൊണ്ട് തക്കാളി ഉണ്ട് മുരിങ്ങയ്ക്ക മുരിങ്ങയില ഉണ്ട് പക്ഷേ അതിനകത്ത് മുരിങ്ങയ്ക്ക ഇല്ല പിന്നെ മത്തങ്ങ മത്തങ്ങ അടിയിലുണ്ട് പിന്നെ വാഴ കൊല ഉണ്ട് വാഴക്കൊല ഉണ്ട് അപ്പം വാഴക്കൊലേന്ന് നമുക്ക് കാ എടുക്കാം അങ്ങനെ ഒരുമാതിരിപ്പെട്ട വെണ്ടയ്ക്ക ഉണ്ട് ചേമ്പ് ചേന ആ ഐറ്റംസ് ഒക്കെ ഞങ്ങടെ വീട്ടിലുണ്ട് അതുകൊണ്ടു തന്നെ ഞങ്ങൾ പുറത്തൂന്ന് പച്ചക്കറികൾ വാങ്ങാറില്ല ഞങ്ങൾ ഞങ്ങടെ വീട്ടീന്ന് പച്ചക്കറികൾ എടുത്ത് തന്നെയാണ് ഞങ്ങൾ സാമ്പാറ് ഉണ്ടാക്കാറുള്ളൂ അപ്പം ആദ്യമായിട്ട് അമ്മ ഇപ്പം സാമ്പാറൊണ്ടാക്കുവാണെങ്കിൽ ഞങ്ങടെ തൊടിയിൽ നിന്ന് തന്നെയാണ് പച്ചക്കറികൾ പറിച്ചെടുക്കുന്നത് പറിച്ചെടുത്തിട്ട് ആ പച്ചക്കറികൾ അരിഞ്ഞിട്ട് ആദ്യം ഈ പച്ചക്കറികളെല്ലാം അരിയും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരിത് വെച്ച് കൂടുതൽ കഷ്ണങ്ങൾ സാമ്പാറിലിടാതിരിക്കുന്നതാരിക്കും നല്ലത് കുറച്ച് പെസാ പച്ചക്കറി പച്ചക്കറി ഉള്ളെങ്കിൽ സാമ്പാറ് കുറച്ചും കൂടെ ടേസ്റ്റി ആകുംന്നാണ് എനിക്ക് എൻ്റെ ഒര് ഇത് വെച്ചാൽ അപ്പം പച്ചക്കറികളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ആദ്യം അരിയണം നമ്മളെല്ലാം സെയിം അളവിൽ അരിഞ്ഞരിഞ്ഞ് കഴുകി ഒര് രണ്ട് മൂന്നാല് തവണ കഴുകണം നമ്മൾ പുറത്തൂന്നക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും അതിൽ പുഴു ഒക്കെ വന്നിരിക്കാൻ സാധ് സാധ്യതയുണ്ട് വെണ്ടയ്ക്കായിലൊക്കെ അപ്പം നമ്മൾ പാ പറിക്കണം കഴുകണം കഴുക്കീട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അരിയണം കുറെ തവണ അര് അരിഞ്ഞിട്ട് കഴുകീട്ട് നമ്മൾ കുക്കറിനകത്താണേ കുക്കറ് ഗ്യാസ് ഞങ്ങൾ ഇപ്പം പൊതുവായിട്ട് കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ അമ്മേടെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്ക അടുപ്പിലാണ് അടുപ്പിൽ നമ്മുടെ ചട്ടിക്കകത്തായിരുന്നു മീൻ കറി വെക്കണത് ചട്ടിക്കകത്തായിരുന്നു സാമ്പാറ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റമ്മ ആണെങ്കിൽ ആദ്യം പച്ചക്കറികളും പച്ചക്കറികളും പരിപ്പും കൂടെ എടുത്തിട്ട്